ഏത് തരം പയാസത്തോടാണ് പ്രിയം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വെള്ള കളറ്ള്ള അതായത് പാലൊഴിച്ചിട്ടുള്ള എല്ലാ പായസത്തോടും ഭയങ്കര താല്പര്യമാണ് അടപ്രഥമൻ ആയിക്കോട്ടെ സേമിയ പായസായിക്കോട്ടെ പാലൊഴിച്ച് അതാണ് ടേസ്റ്റ് പാൽ വെള്ള കളറല്ലാത്ത പായസമെന്ന് പറയുമ്പോൾ ചെറുപയറ് പായസോം അത്പോലെ തന്നെ ഈ ബ്രൗൺ കളറ് ഈ പായ്സം അതിനോടൊന്നും തീരെ താല്പര്യമില്ല ഇഷ്ട്ടമല്ല ശർക്കര ഒഴിച്ചിട്ടുള്ളതിനെക്കാട്ടിൽ ഒക്കെ താല്പര്യം പാലൊഴിച്ചുണ്ടാക്കുന്ന പാൽപായസങ്ങളോടാണ് ഏറ്റോഷ്ട്ടം അത് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ ശുവർ അതിന്റെ ടേസ്റ്റാണ് അത്തിന്റെ ടേസ്റ്റ്ന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ആയിക്കോട്ടെ നെയ്യും അണ്ടിപ്പരുപ്പും ക്സ്മിസ്സും മുന്തിരി ഒക്കെ ഇട്ട് അത് നമ്മൾ നെയ്യിൽ കോരി എടുത്തതിന് ശേഷം അതിലടപ്രഥമനാണെങ്കിലും സേമിയാണെങ്കിലും ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്ത് പാലൊഴിക്കുന്നതിലൂടെയാണ് അതിന്റെ ഡിഫ്രൻസ് വളരെ ടേസ്റ്റി ആയിട്ടും എനിക്കേറ്റോം കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആര് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാലും അല്ലെലാര് സജസ്റ്റ ചെയ്ത ആർക്ക് വേണ്ടി സജസ്റ് ചെയ്യണ പായസോം ഞാൻ വൈറ്റ് കളറുള്ള പാലൊഴിച്ചിട്ടുള്ള പായസ്സങ്ങളാണ് എന്തോ അറിയില്ല അതാണ് ഏറ്റോം ഇഷ്ടം ഏത് പ്രോഗ്രാംസിലാവട്ടെ വിഷു ഓണം ഏതാണെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും ക്ഷണിക്കപ്പെടുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് ഇല്ലെങ്കിൽ പല മാരേജ് ഫങ്ങ്ഷൻലും നമ്മൾ ചെല്ലുന്നുണ്ട് അവിടൊക്കെ ഞാനീ പായസത്തിന്റെ കേസിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് വൈറ്റ് കളറുള്ള അത് ഈ പാലൊഴിച്ചിട്ടുള്ള പായസങ്ങളോടാണ് ഏറ്റോം കൂടുതൽ താല്പര്യം അതാണ് ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും ടേസ്റ്റാണ് മെയിനായിട്ട് ടെസ്റ്റേന്നെയാണ് ടേസ്റ്റി ആയിട്ട് നമ്മൾ പായസം കുടിക്കുന്നത് തന്നെ വയറ് നിറക്കാനല്ലല്ലോ ടേസ്റ്റിനല്ലേ അപ്പോൾ ഏറ്റോം കൂടുതലിഷ്ട്ടന്നു പറയുന്നത് പാലൊഴിച്ചിട്ടുള്ള പായസോങ്ങളോട് തന്നെയാണ് ഓക്കെ